ഹലോ സിറ്റി ടെക്സ്റ്റൈൽസ് ആയിരുന്നു ആരായിരുന്നു ഓക്കെ എങ്ങനെത്തെ ഷോൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് ചുരിദാർ ഷാൾ ആണോ അതോ ആ ഓക്കെ അതിന്റെ എംബ്രോയ്ഡറി അല്ലേ ഓ പിങ്ക് കളർ ഉണ്ടാവും ഓക്കെ ക്രിസ്റ്റലിന്റെ മതിയോ ക്രിസ്റ്റലിന്റെ വർക്ക് ആർട്ട്വർക്ക് ഉള്ളത് മതിയോ ഓക്കെ ഓക്കെ ഓക്കെ ഓ ആയിക്കോട്ടെ ഞങ്ങളുടെ ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട് ഇതിപ്പോൾ ഇരിട്ടിയിലാണ് ഇരുപത്തഞ്ചാം തീയതി വന്നാൽ കിട്ടും

പ്രൈസ് ഇരുപത് എണ്ണമല്ലേ മേഡം ആ അപ്പോൾ രണ്ടായിരം രൂപ

ജെൻറ്റ്സ് വെയറോ മനസ്സിലായില്ല ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച്ചയാണല്ലോ മേഡം ഞായറാഴ്ച്ച ഞങ്ങൾ തുറക്കില്ല ഞങ്ങൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉണ്ടാവും ഒമ്പത് മണി തൊട്ട് ഏഴ് മണി വരെ എപ്പോൾ ഡേറ്റ് ഡേറ്റ് ഡേറ്റ് എപ്പോളായിരുന്നു ഓക്കെ മേഡം ഓക്കെ ഓക്കെ ഞങ്ങൾ വൺ ഓ ക്ലോക്കിന് ഓക്കെ ഓക്കെ